എൻ്റെ ഏറ്റവും അവിസ്മരണീയമായ ഒരു ന്യത്താവതരണം എന്ന് പറയുന്നത് ഞാൻ പഠിക്കുന്ന വിദ്യാലയത്തിൽ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം നടത്തിയ ഒരു സ്റ്റേജ് ഡാൻസ് ആണ് അതിൽ എല്ലാവരുടെയും കൈയ്യടികളും പ്രശംസകളും ഞാൻ നേടിയിട്ടുണ്ട് ഞാൻ മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കളും നേടിയിരുന്നു അതാണ് എൻ്റെ മനസ്സിൽ ഒരിക്കലും മറക്കാൻ ആവാത്തതും അവിസ്മരണീയമായ ഒരു ന്യത്താവതരണം എന്നു പറയുന്നത്